നമ്മുടെ കമ്മ്യൂണിറ്റിയില് നമ്മള് കുട്ടികൾക്കായിട്ട് ഒരു നൃത്തശാല ഉണ്ട് അവിടെ ക്ലാസിക്കൽ ഡാൻസ് ആയാലും സിനിമാറ്റിക് ഡാൻസൊക്കെ ആയാലും പഠിപ്പിക്കുന്നുണ്ട് അത് പ്രത്യേകം പ്രത്യേകം ടീച്ചേഴ്സൊക്കെ വന്നിട്ട് അവിടെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് അവരൊരു പതിനേഴ് പതിനെട്ട് വയസ്സില് വരെയുള്ള കുട്ടികളെയാണ് അവിടെ പഠിപ്പിക്കുന്നത് അപ്പോൾ അവിടെ അവർക്ക് ഒരു പ്രചോദനം എന്ന രീതിയിൽ നമ്മൾ ഇവിടെ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് അതിനകത്ത് പരിപാടി വരുമ്പോഴാണെങ്കിലൊക്കെ അവര് അവര് അതിനകത്ത് പങ്കെടുപ്പിക്കുകയും അങ്ങനെയൊക്കെ അവർക്കൊരു ഭയങ്കര പ്രചോദനം നൽകുന്ന രീതിയില് ഇവിടെ നൃത്തം നടക്കാറുണ്ട് അപ്പോൾ അതേപോലെ എന്താ പറയുക അവർക്ക് ക്ലാസിന് എപ്പോൾ വരാനും ഒരു എന്താണ് താല്പര്യമുള്ള രീതിയിലൂടെ ഭയങ്കര സന്തോഷിച്ച് ഉല്ലസിച്ചൊക്കെയാണ് നമ്മള് ക്ലാസ്സ് പോകുന്നത് അതുകൊണ്ടുതന്നെ അവർക്ക് എപ്പോഴും ഇവിടെ വരാനും ഭയങ്കര ഒരു ഇഷ്ടമാണ് ഭയങ്കര ഒരു മടി പിടിച്ചിട്ടൊന്നുമല്ല അവര് അവരുടെ സന്തോഷം ചിലവർക്ക് നൃത്തം പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെ വരുന്ന കുട്ടികൾ ആയതുകൊണ്ടുതന്നെ അവര് നല്ല രീതിക്കാണ് അവര് ഡാൻസ് കളിക്കുന്നതാണെങ്കിലും ഒരു സ്റ്റേജ് പെർഫോമൻസിലാണെങ്കിലും ഒക്കെ ഭയങ്കര സന്തോഷിച്ച് അവര് ഒരു ഇഷ്ടത്തോടെ കളിക്കും അപ്പോൾ അതിനുള്ള പ്രചോദനവും കൂടി നമ്മുടെ ടീച്ചേഴ്സാണ് നമ്മുടെ ടീച്ചേഴ്സ് അവർക്ക് അങ്ങേയറ്റം ഡാൻസ് എന്താണ് ഡാൻസിനെപ്പറ്റി അതിൻ്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളും അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടുതന്നെ അവർക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര താൽപര്യത്തോടെയാണ് അവര് ഡാൻസ് പഠിക്കുന്നത് ഇവിടെ പഠിക്കുന്നതാണെങ്കിലും പിന്നെ അവര് സ്കൂൾ കലോത്സവങ്ങൾക്കൊക്കെ പോകുകയാണെങ്കിലും അവർക്ക് ഓരോരുത്തരെ സ്കൂളുകൾക്ക് ആയിട്ട് അവരവരെ മാറ്റി മാറ്റി നിർത്തി തന്നെ ഓരോരുത്തർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് സ്കൂൾ കലോത്സവങ്ങൾക്ക് അവർക്ക് പ്രത്യേകം ഡാൻസ് അവർക്കെന്താ പറയുക ഫസ്റ്റ് അടിക്കാൻ പറ്റുന്ന പോലെയുള്ള ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കും അവർ അങ്ങനെ ഒരുപാട് പേര് സ്കൂൾ കലോത്സവങ്ങൾക്കും ജില്ലയിലും സബ് ജില്ലയും ജില്ലയും സ്റ്റേറ്റിലും ഒക്കെ പോയിട്ടുള്ള ഒത്തിരി കുട്ടികൾ ഇവിടെയുണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സ്കൂളുകളിലായാലും മുന്നോട്ടു മുന്നോട്ടു മുന്നോട്ടു പോകുമ്പോഴാണെങ്കിലും അവർക്ക് ഭയങ്കര ഒരു താല്പര്യം ആയിരിക്കുമല്ലോ പഠിക്കണം പഠിക്കണം ഇതിൻ്റെ മുന്നോട്ടു മുന്നോട്ടു പഠിക്കണം അങ്ങനെ ഭയങ്കര കഴിവുള്ള കുട്ടികൾ തന്നെയാണ് ഇവിടെയുള്ളത് വളരെ ചെറുപ്പം ചെറുപ്പത്തിൽ വന്നിട്ടുള്ള കുട്ടികള് ഇപ്പോഴും ഇവിടെയുണ്ട് അതേപോലെ തന്നെ വളരെ ചെറിയ ചെറിയ കുട്ടി മക്കളാണെങ്കിലും ഇവിടെയുണ്ട് അപ്പം എല്ലാവരും ഭയങ്കര സന്തോഷിച്ച് ഉല്ലസിച്ച് പോകുന്ന ഒരു ക്ലാസും ടീച്ചറാണെങ്കിലും ഭയങ്കര മക്കളോട് ഭയങ്കര സ്നേഹത്തിലൊക്കെ പെരുമാറുന്നതുകൊണ്ടുതന്നെ അവർക്ക് ഇവിടെ വരാനാണെങ്കിലും ഒരു മടിയില്ല പഠിക്കാനും ഭയങ്കര ഇഷ്ടം ആയിട്ട് പഠിക്കുന്നു സന്തോഷിച്ചു പഠിക്കുന്നു അതുകൊണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്ന ഒരു ഇതാണ് അവർക്ക് ഇവിടെ സംഘടനയില് എല്ലാവർഷവും സംഘടനയില് ഒരു പരിപാടി ഉണ്ടാകും അപ്പോൾ അവരെല്ലാവരും അവിടെ കളിക്കും അവരുടെ ഒരു എന്താ പറയുക ഒര് ഒത്തിരി കൂട്ടുകാരൊക്കെ ആയിട്ട് കളിക്കുന്നതും അതൊക്കെ ഭയങ്കര സന്തോഷമാണ് അപ്പം ഇങ്ങനെ സ്കൂൾ കലോത്സവങ്ങൾക്കൊക്കെ കൊണ്ടുപോകുന്നതുകൊണ്ടും അവര് പങ്കെടുക്കുന്നതുകൊണ്ടും ഒക്കെ ഭയങ്കര ഇഷ്ടത്തോടെയാണ് അവര് ഡാൻസിനെ അവരുടെ ജീവിതത്തിൽ ഒരു ഭാഗമായി കണ്ടു കൊണ്ടാണ് അവരും മുന്നോട്ടുപോകുന്നത് അതുതന്നെ വലിയ ഭാഗ്യം